ഹലോ സാർ നമസ്കാരം എം കെ വെഡ്ഡിംഗ് കളക്ഷൻസിലേക്ക് സ്വാഗതം പറയൂ ആ ഓക്കെ സാർ ആ സാറേ ഇവിടെ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബനാറസ് സാരി ഇവിടെയുണ്ട് സാരിക്ക് അത്യാവശ്യം നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു രണ്ടായിരം മുതൽ മൂവായിരം വരെയാണ് അതിൻ്റെ പ്രൈസ് കിടക്കുക അതിന് മുകളിലേക്കും പ്രൈസ് ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കുന്നൊരു സാരി എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം സാരീസ് ഉണ്ട് കാഞ്ചീപുരം പിന്നെ പട്ട് തുണികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാഞ്ചീപുരത്തിൻ്റെ റേറ്റ് വരുന്നത് ഇത് രണ്ട് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ് ആ ലെവലിലാണ് ആ കാഞ്ചീപുരം പ ആ കാഞ്ചി അതിൽ ബനാറസ് സാരി സെലക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നല്ല പട്ടായിരിക്കും അതിൻ്റെ നല്ല വൃത്തിയുള്ള ക്ലോത്തും മറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അപ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും ലൈഫിന് കുറച്ച് കൂടെ ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ആ അത് കുറയ്ക്കാം സാർ ആറ് സെറ്റ് ആ സാർ ആറ് സെറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഡിസ്കൗണ്ട് തരാം നമുക്ക് അതിലിപ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ ആറ് സെറ്റ് സാരി എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് വരും ആ എമൗണ്ടിൽ നമ്മളൊരു എത്രയാണ് ഒരു തൗസൻഡ് റുപ്പീസ് നമ്മൾ ഡിസ്കൗണ്ട് പേയ്മെൻറ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ ഓക്കെ സാർ ഏതായാലും നിങ്ങളും ഓക്കെ സാർ ഏതായാലും നിങ്ങളും നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഇങ്ങോട്ട് പോര് സാർ അപ്പോൾ ഏതായാലും ഞങ്ങളെ വിളിച്ചതിനും കോൺടാക്ട് ചെയ്തതിനൊക്കെ ഒരുപാട് ഉം ആ ഓക്കെ പറയൂ അങ്ങനെ അല്ല സാർ അതായത് നമ്മൾ മൊത്തത്തിൽ ആയിരം രൂപയാണ് നമ്മൾ ഡിസ്കൗണ്ട് പേയ്മെൻറ് ആയിട്ട് കാരണം നമ്മൾ അത്യാവശ്യം നല്ല മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്

ആ അപ്പോൾ സാർ ഏതായാലും ഞങ്ങളെ വിളിച്ചതിനും സംസാരിച്ചതിനും എം കെ കളക്ഷൻസിൻ്റെ വക സാറിന് നന്ദിയും മറ്റ് കാര്യങ്ങൾ അറിയിക്കുന്നു ഓക്കെ സാർ